ഈ വിസിൻ് ഷോറൂമാണ് പറഞ്ഞോളൂ അതെ അതെ അത് ബൈക്കാണോ സ്കൂട്ടിയ ആണോ എടുക്കാ ഉദ്ദേശിക്കുന്നേ ബൈക്കാണോ സ്കൂട്ടി ആണോ കൂട്ടീല് നമ്മള് നിങ്ങളെ ബജറ്റ് എത്രയാ ഒന്നര ലക്ഷക്കെ ആണെങ്കി നിങ്ങക്ക് എൻറോർക്ക ഉണ്ടാവും പിന്ന അതുപോലെ തന്നെ കൂടുത പോപ്പുലറായ രണ്ട് വണ്ടികളണ എൻടോർക്കും പിന്നെ ജു ജുപിക്കും നിങ്ങക്ക് അതെ ഇ നല്ല സ്പീഡും അത്യാവശ്യം മെൻചേഞ്ജും ഒക്കെ നോക്കുവാണെങ്കില് എർക്കാണ് നല്ലത് നല്ല പവറും ഒക്കെ ഉണ്ടാവും പിന്നെൊരു സേഫായിയിട്ടൊരു ഫാമിലി വണ്ടി ആണെങ്കില് ജ്യൂപ്പിറ്ററ ആണക്ക് നല്ലത് ഇപ്പോൊ ഏത് എന്താണ് നിങ്ങക്ക് നിങ്ങളുദ്ദേശിക്കുന്നത് ഫാമിലിയല്ലേ ആ അച്ച ക്യട്ടറ് അൻമ്പത് അൻപതിൻ്റെ ആ റൗണ്ട് കിട്ടും നമ്മള് ഓടിക്കുന്നേന്നസരിച്ച്ാണ് എങ്ങനെ ആ കിട്ടുംോ അങ്ങനെ റോഡിലറക്കാന്ും ഒരു ലക്ഷ്യം കില്ലറയും ആവള്ളൂ കളറ് ഏറ്റവും പോപ്പുലറ ആായിട്ട് വരുന്നത് ഒരു ബ്ലൂ നേവി ബ്ലൂ ആണ് പിന്നെ മ മറ്റ് കളർ വേരിയൻസ ഉണ്ട് ഇ ഇ ബ്ലാക്കില്ല ബ്ലാക്ക് അങ്ങനെ ബ്രൈറ്റ് കളറാണ് വുന്നത് അ ഇനി ബ്ലാക്ക് വൈറ്റ ഇല്ല മറ്റ് കൊറേ കളർ ഓപ്ഷൻസ് ഇണ്ട് ഈ ബ്ലൂലന്നെ പലേ വേരിയൻസ് വരുണ്ട് പിന്നെ ബീജ വരുണ്ട് ലവാണ് പറവേ ഉല്ലെ

അതെ കോഴക്കോടി ച കോയിിക്കോട് നമ്മടെ ബൈപ്പാസ്ണ്ടല്ലോ ബൈപ്പാസിൻ്റെ തൊട്ടടുക്കണ്ട് ഒരുൂടി ഈ നമ്മുടെ ഓവർബ്രിഡ്ജ് ആ ഓവർബ്രിഡ്ജിൻ്റെ അടുത്ത

മെയിൻസാക്കല്ല ഞാന് സെൽസ്ില അതെതെ ആ ഇഎംഐ ഉണ്ട്

ഇയനോ ഡൗൺ പേയ്മെൻറ് കഴിഞ്ഞാല് ചെറിയ ആവ ഇണ്ടാവുള്ളൂ കാരണം ഒരു ലക്ഷം ഉള്ളല്ലോ മൊത്തം പ്രൈസ് ഡൗൺ പേയ്മെൻറ് കഴിഞ്ഞ് കഴിഞ്ഞാല് ചെറിയ പൈസ ഇണ്ടാവള്ളൂ അടവ് അതെ

ഡൗൺ പേ്മെൻറ്ോ ഡൗൺ പേയ്മെൻറ് ഒര് അമ്പതിനായിരം സെങ്കില വേണ്ട മ ശരി നിങ്ങള് എപ്പളാണ് വ വങ്ങാൻ ഉദ്ദേശിക്കുന്നത് നമ്മള് ബുക്ക് ചെയ്തിരണോ

ഓക്കെ താങ്ക്യസ്